വയനാട് ജില്ലയിലെ പ്രധാന കൃഷി ഉല്പന്നങ്ങൾ എന്നു പറയുന്നത് നെല്ല് തേയില കുരുമുളക് കാപ്പി റബ്ബർ നാണ്യവിളകൾ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയൊക്കെയാണ് ഇതിനായിട്ട് ഈ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന ജലസേചനം എന്നു പറയുന്നത് മെയിൻ ആയിട്ടും മഴയാണ് പിന്നെ ഡാമുകളിലേയും കുളങ്ങളിലേയും ഒക്കെ വെള്ളം കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കന്നുകാലികളെ ഉപയോഗിച്ച് അവയുടെ വളം എടുത്ത് ഇതിന് കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്